ഗുഡ് ആഫ്റ്റർനൂൺ ആ ആ അയ്യോ ആരാച്ചാരുടെ ഒരു പത്ത് കോപ്പി ഉണ്ടായിരുന്നു അതിപ്പം പത്തും പുറത്ത് പോയിരിക്കുകയാണ്

ചെമ്മീൻ നൊ നോക്കട്ടെ കേട്ടോ ഒരു മിനിറ്റേ ഇല്ല കേട്ടോ ഇവിടെയില്ല ചെമ്മീനും പുറത്ത് പോയിട്ട് കുറച്ചായിട്ടുണ്ട് ആരാണ് കൊണ്ടുപോയത് എന്നൊരു പിടിത്തവും കിട്ടുന്നില്ല അവർ കൊണ്ട് തരുന്നുമില്ല ഒരുപാട് പേർ ചോദിച്ച് വരുന്നുണ്ട് ഇനി ഇപ്പം കൊണ്ടുപോയ അത് ആ

ഓ ബുക്ക് രണ്ടും നല്ല പുസ്തകം തന്നെയാണ് ചെമ്മീനൊക്കെ തകഴിയുടെ പുസ്തകമല്ലേ ഞാനിതേ കൊണ്ടുപോയവരുടെ നമ്പർ ഒന്നെടുത്തിട്ട് വിളിച്ച് അന്വേഷിക്കട്ടെ അവർ കൊണ്ട് പോയിട്ട് കുറച്ചായിട്ടുണ്ട്

ആ നമ്മൾ നമ്മൾ ലൈബ്രറിയിൽ പൊതുവേ രണ്ട് ആഴ്ചയാണ് സമയം കൊടുക്കുന്നത് ഇതിപ്പം രണ്ട് മാസമായിട്ടുണ്ട് ഞാൻ നമ്മളത് ത്തെ ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല ഇങ്ങ ഇങ്ങനെ ഓരോരുത്തർ അന്വേഷിച്ച് വിളിക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചത് വേറെ ഇപ്പം മാർഗം എന്ന് പറഞ്ഞാൽ കുട്ടീ നമ്മുടെ ലൈബ്രറിയിലുള്ള കോപ്പികളെല്ലാം പുറത്ത് പോയിട്ടുണ്ട് ഒന്നുകിൽ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും ഒക്കെ അന്വേഷിക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങേണ്ടി വരും ഇപ്പോൾ ഓൺലൈൻ ആയിട്ടൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഷോപ്പുകളിൽ പോയിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൺലൈൻ ആയിട്ടാണ് കൂടുതലും പുസ്തകങ്ങൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നത് ഷോപ്പിൽ ന ന നം

ഇല്ല ഇല്ല അതാണ് പറഞ്ഞത് നമ്മൾ ഷോപ്പിൽ ചെന്ന് വാങ്ങുമ്പോൾ പുസ്തകത്തിൻ്റെ എക്സാക്റ്റ് പ്രൈസ് കൊടുക്കേണ്ടി വെരും ഓൺലൈൻ ആവുമ്പോൾ നമുക്ക് ഒരുപാട് ഓഫറുകളൊക്കെ കിട്ടുന്നുണ്ട്

ആ ലൈബ്രറിക്കായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല ലൈബ്രറിക്കൊക്കെ നമുക്ക് മറ്റ് പല ഷോപ്പുകളൊക്കെ ആയിട്ട് ടൈ അപ്പ് ഉണ്ടാവുമല്ലോ

തകഴിയുടെ എന്ത് ആ ഓക്കെ ആ ഓക്കെ ഓക്കെ താങ്ക് യു ആ ആ ആയിക്കോട്ടെ